ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് കൂടുതലായിട്ടും വിനോദ പരിപാടികൾ നടത്തുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബേപ്പൂർ അതായത് ബേപ്പൂർ സുൽത്താൻ്റെ മണ്ണിൽ തന്നെ നടക്കുന്ന ബേപ്പൂർ ഫെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നടത്തുന്നുണ്ട് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വിനോദസഞ്ചാരം പ്രദേശങ്ങളിൽ നല്ല രീതിയിലുള്ള ഉത്സവം കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് ഇപ്പം നമ്മുടെ തുഷാരഗിരി വെള്ളച്ചാട്ടം പിന്നെ മടക്കി വെള്ളച്ചാട്ടം അങ്ങനത്തെ പല രീതിയിലുള്ള വെള്ളച്ചാട്ടം കാര്യങ്ങളും നമ്മുടെ ജില്ലയിലുണ്ട് അപ്പം അവിടെയൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉത്സവങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട് അപ്പോൾ അവിടെനിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പരിപാടികളും നടത്തുന്നതിനനുസരിച്ച് അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അവിടെത്തന്നെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ അമ്പലങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അമ്പലങ്ങളിലൊക്കെ വിനോദസഞ്ചാര സഞ്ചാരികൾ വെരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതു കൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള പരിപാടി ആ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോഴിക്കോടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് കേരളത്തിലെ തന്നെ രണ്ടാമത്തെ എന്താ പറയുക ഒരു സിറ്റിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്